ഇവിടെ മാധ്യമങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറില്ല കാരണം ഓരോ മാധ്യമങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഇഷ്ടമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടു തന്നെ ആ പാർട്ടിയെ തളർത്തുന്നതോ അല്ലെങ്കിൽ അതിനെ ഉയർത്തിക്കാണിക്കുന്നതൊന്നും അവരവിടെ കാണിക്കുന്നില്ല എന്ന് അതേപോലെത്തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊന്നും കാണിക്കുന്നില്ല ആ പ്രവൃത്തി അവർ ആ പാർട്ടിക്കാരെന്താണോ ചെയ്യുന്നത് അതിനെ എന് അതിന് ഉയർത്തിക്കാണിക്കുന്ന ന്യൂസുകൾ മാത്രമായിരിക്കുമെപ്പൊഴും മാധ്യമപ്രവർത്തകർ കൊടുക്കാറുള്ളത് അതുകൊണ്ടു തന്നെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇതൊന്നും കഷ്ടപ്പാടുകളൊ ഒന്നും പരാതികളുമൊന്നും ഒരിടത്തും കിട്ടുന്നില്ല